ഹലോ ധന്യ ഡോക്ടറല്ലേ ഇത് ഞാൻ മിനിയാന്ന് വന്നിട്ടുണ്ടായിന് ആ ഇത് അപ്പോൾ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് അടുത്തായി അപ്പോൾ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആടെ വന്നിട്ടുണ്ടാവുമ്പോൾ അവർ പറഞ്ഞു ഡോക്ടറിന്ന് ലീവ്ന്നു പറഞ്ഞു അപ്പോൾ വിളിച്ചുപറഞ്ഞാൽ മതീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചത് ഇന്ന് ഉണ്ടാവോ ഹോസ്പിറ്റലിൽ പേര് രമ്യ

ഇതിപ്പോൾ ഒൻപതാം മാസം ആ എഴുതി തന്നിട്ടിണ്ടായിനി എടുത്തിട്ടപ്പോൾ എടുത്തിട്ട് നിങ്ങളെ കണ്ടാൽ വന്നാൽ മതിയോ നാളെ ഉണ്ടാവോ നിങ്ങൾ ആ ആ

ആ ആ ആ ഡെലിവറി ഡേറ്റ് അടുത്താഴ്ച തന്നിട്ടുള്ളത്

ആ തന്നിട്ടുണ്ടായി ആ ചെയ്തിന് ചെയ്തിന് ആ ആ

ആ ശരി അപ്പോൾ ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് വരണോ ക്ലിനിക്കിലേക്ക് വന്നിട്ട് കണ്ടാൽ മതിയോ ആ ആ ആ ആ ക്ലി ഉച്ചവരെയിണ്ടാവോ അല്ലേ വൈകുന്നേരം വരെയിണ്ടാവോ നിങ്ങൾ ക്ലിനിക്കിൽ

ആ ആ

അതെയതെ ആ ആ ശരി

ആ ശരി ശരി ശരിയെന്നാൽ